ഈ കല കല കരകൗശല സാധനങ്ങൾ എന്ന് ഒക്കെ പറയുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു മുദ്രയാണ് ഓരോ സ്ഥലത്തും ഓരോന്ന് ഇപ്പോൾ ഞാൻ പറയട്ടെ ആറന്മുള കണ്ണാടി അത് നമുക്ക് എവിടെ ചെന്നാലും കേരളത്തില് ആലപ്പുഴ ആ ഭാഗത്ത് ഒക്കെ ആണ് ആറന്മുള കണ്ണാടി കാണപ്പെടുക എന്നാണ് അതേപോലെ തന്നെ ഓരോ സ്ഥലത്തും ഓരോ ഓരോ കരകൗശല സാധനങ്ങൾ ഉണ്ട് അത് അതിൻ്റെ ഒരു ഐഡൻറിറ്റി ആണ് ആ നടിൻ്റെ തന്നെ ഐഡൻറിറ്റി ഇപ്പം നമുക്ക് അതിനു ഒരു ഇത് ഉണ്ടങ്കില് അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് എക്സിബിഷൻ ആയിക്കോട്ടെ രാജ്യങ്ങൾ ആയിക്കോട്ടെ അതിനൊക്കെ ഒരു വാല്യൂ ഉണ്ടാകും നമുക്ക് ആ മൂല്യം നമുക്ക് ഉണ്ടങ്കിൽ ഒരു ഇത് ഉണ്ട് അത് നമ്മള് എന്താ പറയുക നമ്മൾക്ക് നമ്മുടെ നാടിന് കൊടുക്കുന്ന സംഭാവന തന്നെയാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിലൂടെ നല്ല ഇത് നമ്മളുട് ഈ നാട്ടിൽ നിന്ന് ഉണ്ടായ ഉൽപ്പന്നമാണെന്ന് ആൾക്കാരോട് പറയുകയെങ്കിലും ചെയ്യാമല്ലോ ചിഹ്നങ്ങള് പാരമ്പര്യങ്ങള് ഓരോ ഇപ്പോൾ നമ്മള് പറയാറ് ഉള്ള റെസിപ്പി എല്ലാം കൊണ്ടും ഫേമസ് ആണ് ഹൽവ ആ ഹൽവേൻ്റെ റെസിപ്പി ഒക്കെ നമുക്ക് പറഞ്ഞ് കൊടുത്ത നമ്മുടെ നടിൻ്റെ കോഴിക്കോടൻ ഹൽവ എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും ഒരു ഇത് അല്ലേ എന്താ പറയുക അത് ഒരു ടെസ്റ്റിൻ്റെ വേരിയേഷൻ ഒരു മാറ്റം ആണ് എത്ര ഹൽവകൾ ഉണ്ടായാലും കോഴിക്കോടൻ ഹൽവക്ക് ടെസ്റ്റിന് വ്യത്യാസം ഉണ്ട്